പ്രായമുള്ളവർ കളിക്കുന്നത് അവരുടെ ആരോഗ്യത്തിനും മല്ലു ഉള്ളതായുള്ള കളികൾ ആയിരിക്കും വ്യായാമ രീതിയിലുള്ള കളികളാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതവരുടെ ആരോഗ്യത്തിനും വളരെ ഏറെ മേന്മയേകുന്നതാണ് പ്രായമായ വ്യക്തികൾ അവർക്ക് പല കളികൾക്കും കളിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടു തന്നെ ശരീരം വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രം ചലിച്ചു കൊണ്ട് വളരെ നല്ല രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കാനും മനസ്സ് ശാന്തമാക്കാനും മനസ്സിനെ നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടു പോകുന്ന രീതിയിലുള്ള കളികളാണ് അവർ കളിക്കുക തീർച്ചയായും അവർ അതിലേക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതും